ഞാൻ കോട്ടയത്തു നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് ഒരു പാസഞ്ചർ ബെസ്സിൽ പോയ യാത്രയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഞാൻ പോയ ബസ്സിലാണെങ്കിൽ എനിക്ക് നല്ല കുറെ അനുഭവങ്ങളുണ്ട് ഞാൻ പോയ ബസ്സുകളിലാണെങ്കിൽ എന്താ സീറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ വിൻഡോ ഡീസൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് എന്നെ അതിൽ അധികമൊന്നും ബാധിച്ചിട്ടില്ല കാരണം സീറ്റാണെങ്കിലും നമുക്ക് കംഫേർട്ടബ്ളായിട്ടുള്ള രീതിയിലായിരുന്നു സീറ്റും കാര്യങ്ങളും പിന്നെ നമ്മുടെ എന്തുവാ കരിയർ അല്ലെങ്കിൽ സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ബാഗൊക്കെ ആണെങ്കിലും നമുക്ക് സെയിഫായിട്ട് നമുക്കെല്ലാം സ്റ്റോർ ചെയ്ത് വെയ്ക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കാണെങ്കിൽ ഒരു നമുക്കൊരു നെഗറ്റീവ് ഒന്നും അടിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ന്നെ നമുക്കൊരു അൺകംഫെർട്ടബിൾ ഫീല് നമുക്കതിൽ ഉണ്ടായില്ല ആ ഒരു യാത്രയിലൂടെ പോകുന്ന സമയത്താണെങ്കിൽ നല്ലൊരു യാത്രയായിട്ടാണ് എനിക്കതിൽ പറയാനുള്ളത് ഞാനാണെങ്കിൽ പോ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് വണ്ടിയിലധികം തിക്കും തിരക്കും ഉണ്ടെങ്കിൽ പോലും എനിക്കവിടെയൊരു അൺകംഫർട്ടബിൾ ഫീല് ഉണ്ടായില്ല ഞാനാണെങ്കിൽ പോയത് നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് അവിടെ എന്താ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല